ഞാൻ ഇന്നലെ ആമസോണിൽ നിന്നൊരു ഫേസ് ക്രീം വാങ്ങിയിരുന്നു ഹിമാലയയുടേതായിരുന്നു ആ ഫേസ് ക്രീം അപ്പോൾ ഞാൻ മുഖത്ത് എൻറെ മുഖം എന്ന് പറയുന്നത് മുഖക്കുരു പിന്നെ കറുത്ത പാടുകളും ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മുഖത്ത് തിളക്കം അതൊക്കെ വല്ലാതെ കുറവുമായിരുന്നു ഒരു കരുവാളിപ്പ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഹിമാലയയുടെ ഫേസ് ക്രീം ഞാൻ യൂസ് ചെയ്തതിനുശേഷം എനിക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് മുഖക്കുരു കുറഞ്ഞിട്ടുണ്ട് കരുവാളിപ്പ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ കറുത്ത പാടുകൾ കുറഞ്ഞിട്ടുണ്ട് മുഖത്തു നല്ലൊരു തിളക്കം ഞാൻ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഹിമാലയയുടെ ആ ഒരു ഫേസ് ക്രീം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു